ഞാൻ ഇന്നലെ സ്വിഗ്ഗിയിൽ നിന്നും ഒരു മന്തി ഓർഡർ ചെയ്യുകയുണ്ടായി അതിൽനിന്നും എനിക്കൊരു ഡിസ്ക്കൗണ്ട് കൂപ്പൺ ലഭിച്ചു അത് ഇന്ന് ഞാൻ റെഡീം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ കൂപ്പണിൽ ലഭിക്കും എന്നുള്ളതും അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ മറ്റേതെങ്കിലും ഓഫറുകളോ ഡിസ്ക്കൗണ്ടുകളോ കിട്ടാൻ ആഗ്രഹിക്കുന്നു